ആ ചേച്ചി വരൂ വരൂ എന്താ വേണ്ടേ ഓ അതെയോ ആ ആ ആ ആ അത് പറഞ്ഞോളൂ ചേച്ചി ബുക്ക് പറഞ്ഞോളൂ നമുക്ക് എടുത്ത് തരാം എന്താ എന്താ ചേച്ചി ഓ കമലാ സുരയ്യേൻ്റെ എത്ര എത്രയെണ്ണമാണ് ഇപ്പോൾ ഓരോരുത്തരുടെയും ആ വീണപൂവ് ഓ വീണപൂവുണ്ട് ആ പിന്നെന്താ ചേച്ചി വേണ്ടത് ആ ഇല്ല ആ ഇല്ല കുഴപ്പമില്ല ചേച്ചി ഇപ്പോൾ എന്താണ് അല്ലെങ്കിലും ബഡ്ജറ്റ് നമുക്ക് അത്രയൊന്നും വരില്ലാ നോക്കാം നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണേ ഇച്ചിരി സെക്ഷൻ ആ ഒരു അവിടെയുണ്ടാവുക ആ ഒരു കബോർഡിലായിട്ടാണ് നമുക്ക് അത് റാക്കിലായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ചേച്ചി പറഞ്ഞോളു അടുത്തത് ഒ ഓ

ആ ആ ഓ ആ ഓക്കെ ആ ചേച്ചി ഇവിടെയിപ്പോൾ എല്ലാ തരത്തിലുള്ള ബുക്സുമുണ്ട് നമ്മുടെ ഇവിടെ പരിസരത്ത് ഇവിടെയാണ് ഏകദേശം എല്ലാ പുസ്തകങ്ങളും ഉള്ളത് അപ്പോൾ എല്ലാത്തരം ആൾക്കാരും ഇവിടെ വന്നാണ് വാങ്ങാറുള്ളത് ചേച്ചി ടെൻഷൻ ആവുകയൊന്നും വേണ്ട എല്ലാ തരത്തിലുള്ള ബുക്കും ഇവിടെ അവൈലബിൾ ആണ് ആ വേറെയെന്താ ചേച്ചി വേണ്ടത് ആ ഉണ്ട് ഉണ്ട് ചേച്ചി എല്ലാം ഇവിടെ ഉണ്ട് ഉണ്ട് ഓ ആ ഓക്കെ ഓ അത് ബുക്ക് ഓ ഓക്കെ അടുത്തത് ആ ഓക്കെ ഓക്കെ ആ നമുക്കിവിടെ എല്ലാ ബുക്കും നമുക്കിവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്ര മതിയോ

ആ അതെ ആ അതെ ചേച്ചി ഇപ്പോൾ ചേച്ചിക്ക് പുസ്തകങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാലാണ് നമ്മുടെ സ്റ്റോറിലാണ് എല്ലാം ഉള്ളത് അപ്പോൾ ഇവിടപ്പോൾ എല്ലാ പുസ്തകം കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എല്ലാവരും ഇവിടെയാണ് വരാറുള്ളത് അപ്പോൾ ചേച്ചി ഇനി എന്ത് പുസ്തകമുണ്ടെങ്കിലും നമ്മുടെ ഇവിടേക്ക് വന്നാൽ മതി ഇവിടെയെല്ലാം ഉണ്ടാവും ആ ചേച്ചി നമുക്ക് നോക്കാം നമുക്ക് നോക്കാം എന്നാൽ ഇപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ട് വരട്ടെ ഒന്ന് നമുക്കതു കഴിഞ്ഞ് നോക്കാം ഓക്കെ ആ ആ ആ ഇവിടെ ഫസ്റ്റ് പ്രിന്റ് ഇവിടെയെല്ലാം ഉണ്ട് സെക്കൻഡ് പ്രിന്റും എല്ലാം ഇവിടെ ഉണ്ട് മ് ആ ആ ഓക്കെ ആ ഓക്കെ ഞാനിപ്പോൾ എടുക്കം കേട്ടോ ഓക്കെ ആ അപ്പോൾ അപ്പോൾ നമുക്കെല്ലാം കൂടെ നമുക്ക് വരുന്നത് നമുക്ക് എഴുന്നൂറ്റി എൺമ്പതാണ് വരുന്നത് അപ്പോൾ ചേച്ചി ഇപ്പോഴായതുകൊണ്ട് നമുക്കൊരു എഴുന്നൂറ്റിയമ്പത്

ആ വന്നാൽ മതി വന്നാൽ മതി ആ ആ ഉണ്ട് ഏച്ചി ഉണ്ട് ഏച്ചി മ് ആ ആ ആ ഓക്കെ ചേച്ചി അപ്പോൾ എഴുന്നൂറ്റമ്പത് എല്ലാം കൂടി ആയിട്ടുണ്ട് ഇതാ ചേച്ചി സാധനം ഇതാ ആ ഓക്കെ